ഇപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ വിപണിയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പൈസ ഒരു ഇതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇപ്പം പല രീതിയിലുള്ള ആപ്പുകളുണ്ട് അതായത് എക്സ്ബാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഇപ്പം നമ്മുടെ പ്ലേസ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒന്നാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പൈസ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ആയിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരം രൂപയൊക്കെ കിട്ടുമായിരിക്കും പിന്നെ നമ്മൽ പിന്നെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഒരു മനുഷ്യരാണല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയുടെ ആ ഒരാള് ഒരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമുക്ക് കിട്ടാനുള്ള അത് കിട്ടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും അപ്പം ആ രണ്ടായിരം രൂപയും ചിലപ്പോൾ നമ്മള് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും ചിലപ്പോൾ പിന്നേം ചിലപ്പോൾ കൊടുക്കുമായിരിക്കും അവര് പിന്നെങ്ങനെ അതിൻ്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് ഇപ്പം നമ്മുടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാല് ഡോളറിന് വില കൂടുന്നതുപോലെയൊക്കെയാണ് പൈസ കിട്ടുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലപ്പം രണ്ടായിരം രൂപ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീണ്ടും ഒരു ആയിരം രൂപയോ രണ്ടായിരം രൂപയോ നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള പൈസകളൊക്കെ കിട്ടും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് നിന്ന് നമുക്ക് നമ്മളെ പറ്റിക്കപ്പെടാനൊക്കെ ചാൻസ് കൂടുതലാണ് വളരെയധികം നമ്മള് ചിലപ്പോൾ പൈസ ഇട്ടു കഴിയുമ്പോൾ പൈസ പിന്നെ കിട്ടില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയിണ്ട് അപ്പോൾ നോക്കിയും കണ്ടും നമ്മൾ ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും അതാണ് ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വച്ചു കഴിഞ്ഞാൽ